ഞങ്ങളുടെ പ്രദേശത്ത് വെറ്റിനറി ഡോക്ടർ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് നല്ല രീതി തന്നെയാണ് അത് മൃഗങ്ങളെ ആരോഗ്യത്തോടെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അസുഖങ്ങൾ അല്ലെങ്കിൽ ചെള്ള് പിടുത്തം വയ്യായിക പാലുൽപാദനശേഷി അങ്ങനെ ഒക്കെ കുറവ് വരുമ്പോഴത്തേക്കും അത് അതെങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതുങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചും എല്ലാം പറഞ്ഞ് വ്യക്തമാക്കി തരാറുണ്ട് ഇനി ഞങ്ങളുടെ വീട്ടിൽ മൃഗങ്ങളില്ല അതുകൊണ്ട് എപ്പോഴാണ് അവസാനമായിട്ട് പരിശോധിച്ചത് എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം എല്ലാവരോടും പൊതുവേ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അധികം പണമൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല ചില ഡോക്ടർമാർ വാങ്ങാറില്ല എന്ന് പറയുന്നുണ്ട് ചിലവർ വീട്ടിൽ വന്ന് നോക്കുന്നതിന് മാത്രം എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സ്ഥിരമായി വാങ്ങുന്ന ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തത ഇല്ല എന്ന് വേണം പറയാൻ